ഹലോ എനിക്ക് ഇന്ന് രാത്രി ഒരു ഒന്ന് മുപ്പതിന് ഏതെങ്കിലും ഓട്ടോയോ ഒരു ക്യാബോ എന്തെങ്കിലും ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എനിക്ക് അടുത്തുള്ള നമ്മുടെ തമ്പാനൂരുള്ള ആ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഈ വൈകിയ സമയത്തായതുകൊണ്ട് ഓട്ടോയോ ക്യാബോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് സമയം വന്ന് രാത്രി ഒന്ന് മുപ്പത്തിനാണ് എനിക്കിവിടെ നിന്ന് തിരിക്കേണ്ടത് പിന്നെ പിക്കപ്പ് ചെയ്യേണ്ട സ്ഥലം വന്ന് കവടിയാർ ബസ് സ്റ്റോപ്പിൽ ഞാൻ നിൽക്കും അവിടെ വന്നാൽ മതി അവിടെ നിന്നാണ് എനിക്ക് പോകേണ്ടത് പിന്നെ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പിന്നെ ഞാൻ എന്തായിരുന്നാലും ഒരിക്കൽ കൂടെ ഒന്ന് വിളിക്കാം ഒന്ന് അന്വേഷിച്ചു വച്ചേക്കു ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാം പറഞ്ഞാലും മതി ആ ശരി എന്നാൽ അപ്പോൾ രാത്രി ഒന്ന് മുപ്പതിന് കവടിയാർ ബസ് സ്റ്റോപ്പ് ഓക്കേ